പാചകത്തിനു മുമ്പ് നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളകുപൊടി ഗരം മസാല ഇവയെല്ലാം ആദ്യമേ കുറച്ച് പാത്രത്തിലാക്കി മാറ്റി വെയ്ക്കും അതിനുശേഷം മുളക് സബോള പിന്നെ കിഴങ്ങ് തക്കാളി ഈ കിഴങ്ങും തക്കാളിയും നമ്മൾ എല്ലാ കറിക്കും എപ്പോഴും ഇടാറില്ല എങ്കിലും ഞാൻ മിക്കപ്പോഴും കിഴങ്ങും തക്കാളികളും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇവയെല്ലാം മാറ്റിവെക്കും അതിനു ശേഷം തേങ്ങ ചിരണ്ടും അര മുറിയോളം തേങ്ങ ചിരണ്ടി തേങ്ങാ ചിരണ്ടിയിട്ട് ഈ തേങ്ങ മിക്സിയിലിട്ട് കുറച്ചു വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ചുവന്നുള്ളിയും ജീരകവും എല്ലാം കൂടെയിട്ട് ഒന്ന് ഒതുക്കി എടുക്കും ആ അരപ്പ് മാറ്റി വെച്ചതിനുശേഷം പിന്നെ കുറച്ചു കറിവേപ്പിലയും കൂടി എടുത്ത് പാചകത്തിനായി നമ്മൾ തയ്യാറാക്കി വെയ്ക്കും